പത്ത് ആറ് രണ്ടായിരത്തി നാല് ഇരുപത് മൂന്ന് രണ്ടായിരത്തി പതിനാല് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി അഞ്ച്